ആ ഹലോ എൻറെ പേര് ആനന്ദ് എന്നാണ്

എൻ്റെ പേര് ആനന്താണ് ഞാൻ മഞ്ഞുഷിയിൽ നിന്നാണ് വരുന്നത് ആ നിങ്ങളുടെ ട്രാവൽ ഏജൻസിയെപ്പറ്റി കുറേ കേട്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഒരു പത്ത് ദിവസത്തെ ട്രിപ്പുണ്ട് അത് പോവാനാണ് ഒരു മുപ്പത് ദിവസം ലീവ് വരുന്നുണ്ട് ഞാനിപ്പോഴൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുപ്പത് ദിവസം ലീവ് ഉണ്ട് ഒരു പത്ത് ദിവസത്തെ ട്രിപ്പ് പോകാനായിട്ടാണ് അപ്പോൾ ഫാമിലിയായിട്ട് പോകാനാണോ താല്പര്യം അതുതന്നെ ഓക്കെ അതെ എനിക്ക് കുറച്ച് ദൂരം വേണം ഒരു കൊടൈക്കനാൽ അങ്ങനത്തെ ഒരു കുറച്ച് നല്ല ഏരിയാസ് ഒരു രണ്ട് മൂന്ന് ഏരിയാസ് ഏതാണ് ഉള്ളത് ആ ഓക്കെ ഓക്കെ ഓക്കെ അതെയല്ലേ കുറച്ച് ഡിസ്റ്റൻസ് കൂടിയത് ഏതാണ് ഉണ്ടാവുക അതെയല്ലേ ഓക്കെ കുളുമണാലി ഓക്കെ എനിക്ക് ഫാമിലി ആയിട്ടാണ് ഒരു ഞങ്ങളൊരു എട്ടു പേരുണ്ട് മൂവായിരം ഓക്കെ നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും കുറച്ച് ഒരു ബഡ്ജറ്റിൽ നിന്ന് കുറച്ച് തരണം ഓക്കെ

എല്ലാം കൂടി ചേർത്താണ് മൂവായിരം അല്ലേ ഒരാൾക്ക് അതെയല്ലേ ഓക്കെ എന്നാൽ എന്ത് വെഹിക്കിളാണ് നിങ്ങൾ ഇറക്കാൻ പോകണത് ട്രാവെല്ലറാണോ ഓക്കെ ഓക്കെ ഓക്കെ അതായത് ഞാനിതിന് മുമ്പ് ഈ സ്ഥലങ്ങളിൽ പോയിട്ടില്ല അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ വരണ ഫാമിലിയാണ് പിന്നെ കുറേ എൻ്റമ്മയുണ്ട് ഭാര്യയുണ്ട് കുട്ടികളുണ്ട് ഒക്കെയുള്ളതാണ് കൂടെ അപ്പോൾ നമ്മൾ അതിന് പറ്റിയ ആൾക്കാരും വേണം കൂടെ അതാണ് ഡ്രൈവറും ആണെങ്കിലും ഫാമിലി ആയിട്ടാണെങ്കിലും അതാണ് നിങ്ങളെ വിശ്വാസത്തോടെ അന്നേരം നിങ്ങളത്തേടി വന്നത്

ഓക്കെ ഓക്കെ എനിക്ക് ചോദിക്കാനുള്ളത് ആ റേഞ്ചൊന്ന്

ഡേറ്റ് അല്ലേ ഡേറ്റ് ഞാൻ ഈ വരുന്ന ഇരുപത്തി ഒരു ഈ മാസം ലാസ്റ്റാണ് അത് ഒരു മുപ്പത്തൊന്ന് മുപ്പത്തൊന്നിന് ഫിക്സ് ചെയ്യാം സെപ്റ്റംമ്പർ മുപ്പത്തൊന്ന് അതെയല്ലേ ഓക്കെ ഓക്കെ ഡിസ്കൗണ്ട് എന്തായാലും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഓക്കെ ഞങ്ങളിത്രയും പേരുള്ള കാരണം എന്തെങ്കിലും നന്നായി കുറച്ച് തരണം ഓക്കെ ഓക്കെ പിന്നെ അത് ഞാനത് അപ്പം ശരി ശരി ഓക്കെ അന്നേരം നിങ്ങൾ കോള് ചെയ്യുന്നുണ്ടാവുമലോ അല്ലേ എല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞ്

ഇല്ല ഞങ്ങൾക്ക് മെയിനായിട്ടും പോകുന്ന വണ്ടീന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ വേണം പിന്നേ ട്രിപ്പ് പോകുമ്പോൾ ഓക്കെ ഞാൻ വരാം അതെ അതെ അതെന്തായാലും വേണം ശരിയാണ് ക്യാമ്പ് ഫയറ് പോകുന്ന അതേപോലെ പോയി നിൽക്കുന്ന റിസോർട്ടാണെങ്കിലും നല്ല റിസോർട്ടായിരിക്കണം കുറച്ച് കോസ്റ്റലി ആണെങ്കിലും പ്രശ്നമല്ല ഓക്കെ ആ കാര്യത്തിലൊന്നും പ്രശ്നമില്ല ഓക്കെ ശരി ഓക്കെ ശരി ഓക്കെ